മുൻ കാലങ്ങളിലൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അവരുടേതായോരോ കളികളുണ്ടായിരുന്നു അതുപോലെത്തന്നെ ക്രിക്കറ്റും ഫുട്ബോൾ ഹോക്കിക്കളി അതുപോലെത്തന്നെ ഗോട്ടിക്കളി പമ്പരം കറക്കൽ ഇങ്ങനത്തെ കളികളൊക്കെ ആൺകുട്ടികളാണ് കളിച്ചിരുന്നത് പിന്നെ തൊട്ട് കളി ഉമ്മയും കുട്ടിയും കളി വള്ളിച്ചാട്ടം കക്ക് കളി ഇതുപോലത്തെ കളികളൊക്കെ പെൺകുട്ടികളാണന്നത്തെ കാലത്ത് കളിച്ചിരുന്നത് എൻ്റെ ചെറുപ്പ കാലത്തൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരികളൊക്കെ കൂട്ടിക്കളി കളിക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റടുത്തുള്ള അയൽവാസിയായ ആൺ കുട്ടികളൊക്കെ ഞങ്ങളെ കളിയാക്കുമായിരുന്നു കാരണം അന്നത്തെ കാലത്തൊക്കെ ആൺ കുട്ടികളല്ലേ അങ്ങനത്തെ കളികളൊക്കെ കളിച്ചിരുന്നത് ഇക്കാലത്ത് പിന്നെ അതൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കാലത്ത് ആൺ കുട്ടികൾ കളിച്ചിരുന്ന കളികളിലൊക്കെ പെൺ കുട്ടികൾ സജീവമായി കളിക്കാറുണ്ട് അതുപോലെത്തന്നെയാണ് ആൺകുട്ടികൾ ഇപ്പോൾ അങ്ങനെ ഇന്നത്തെ കാലത്തങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഒരേ പോലെയാണ് മുമ്പൊക്കെ ആൺകുട്ടികൾ കളിക്കണ കളി പെൺകുട്ടികൾ കളിച്ചാൽ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരുന്നത്